ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്നു പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് എടുക്കുകയാണെങ്കിൽ ഭാഷ ഉത്തരേന്ത്യയിൽ പ്രധാനമായിട്ടും ഹിന്ദി ഉറുദു പഞ്ചാബി ഇങ്ങനത്തെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക കോമ്മൺ ആയിട്ട് എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഈ ഇങ്ങനത്തെ ഭാഷകളായാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക പിന്നെ വരികയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ കൂടുതലായിട്ട് ഗോതമ്പ് അതാണ് യൂസ് ചെയ്യാറ് എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അരി അരി ആഹാരമാണ് കൂടുതൽ പിന്നെ വസ്ത്രധാരണത്തിൽ പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണമാണ് യൂസ് ചെയ്യാറ് എന്നാൽ ഉത്തരേന്ത്യയിൽ ആണെങ്കിൽ കുറച്ച് മോഡേൺ കൾച്ചർ ആണ് അവർ ഫോള്ളോ ചെയ്തു വരുന്നത് പിന്നെ കാലാവസ്ഥേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ

ഒരു ശൈത്യകാല രീതിയാണ് വരുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ കുറച്ചും ചൂട് കാലാവസ്ഥയായിരിക്കും കൂടുതൽ എപ്പോഴും പിന്നെ സാക്ഷരതേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ സാക്ഷരത കുറവും ദക്ഷിണേന്ത്യയിൽ സാക്ഷരത കൂടുതലും ആണ്